ഇപ്പോൾ വയനാട് ജില്ലയിൽ തന്നെയാണെങ്കിൽ നമുക്ക് ഒരുപാട് തിയേറ്ററുകൾ പരിചയം ഉണ്ട് ഇപ്പോൾ പുൽപ്പള്ളിലെയൊക്കെ ആണെങ്കിൽ സാധാരണ നമ്മൾ പോകാറുള്ള തിയേറ്റർ എന്ന് പറയുമ്പോൾ പെൻ്റാ സിനിമാസ് അങ്ങനത്തെ തിയേറ്ററിൽ പെൻ്റാ സിനിമാസ് എന്ന് പറഞ്ഞ തീയേറ്ററിൽ പോകും പിന്നെ ബ്ലൂ മൂൺ അങ്ങനത്തെ തിയേറ്റർ ഒക്കെയാണ് എന്നാൽ അവിടെ ആദ്യകാലത്ത് ഉണ്ടായിരുന്നത് ജോസ് തിയേറ്റർ ഉദയ ടാക്കീസ് അങ്ങനത്തെ തിയേറ്ററുകളൊക്കെ ആയിരുന്നു പിന്നെ ബത്തേരിയിലേക്ക് ഒക്കെ ആണെങ്കിൽ നമുക്ക് കൂടുതലായിട്ടും വരുന്നത് പെൻ്റാ തിയേറ്റർ ഒക്കെയാണ് പെൻ്റേൻ്റെ തന്നെ അവിടെയും വരുന്നുണ്ട് പിന്നെ മിൻ്റ് മാളിൽ തിയേറ്റർ ഉണ്ട് മാളിൻ്റെ തന്നെ തിയേറ്റർ വരുന്നുണ്ട് പിന്നെ മാനന്തവാടിയിൽ ജോസ് തിയേറ്റർ വീണ വർണ്ണ അങ്ങനത്തെ തിയേറ്റർ പിന്നെ മാരുതി ഇങ്ങനെയൊക്കെയാണ് മാനന്തവാടിയിലെയൊക്കെ തിയേറ്ററുകൾ വരുന്നത് ഇവിടെയൊക്കെ പോയിട്ടാണ് ഞാൻ സാധാരണ പുതിയ എന്താണ് പറയുക പുതിയതായിട്ട് ഇറങ്ങുന്ന പടങ്ങളൊക്കെ കാണാറ് അവിടെ എന്താണ് പറയുക പുതിയ പടങ്ങളൊക്കെ വന്നുകഴിഞ്ഞാൽ ആദ്യം തന്നെ അവർ അവിടുന്ന് എത്തിക്കുകയും അതിനുശേഷം ടിക്കറ്റ് ഏകദേശം ഒരു നൂറ്റിപ്പത്ത് രൂപ നൂറ്റി ഇരുപത് രൂപ ആ ഒരു ബഡ്ജറ്റിൽ ആണ് സാധാരണ സിനിമകളൊക്കെ ടിക്കറ്റ് നിരക്കൊക്കെ വരാറ് ഞാൻ ഓൾറെഡി അവിടെ പോയിട്ടാണ് സാധാരണ സിനിമകളൊക്കെ കാണാറ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ സൗണ്ട് ഒക്കെ എന്താണ് ഫോർ കെ അങ്ങനെയൊക്കെ ഓരോ ഇതിൽ അപ്ഡേറ്റ്സിലും വന്നുകൊണ്ടിരിക്കുകയാണ് നല്ല എന്താണ് പറയുക നല്ല രീതിക്ക് തന്നെ സൗണ്ടും കാര്യങ്ങളും എല്ലാം അവിടെ ല വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ സാധാരണ പോകാറുള്ളത് ഈ തീയേറ്ററുകളിൽ ഒക്കെ തന്നെയാണ്